ഇന്നത്തെക്കാലത്ത് ഒരുപാട് വ്യക്തികളില് പ്രായമായവരില് നിറഞ്ഞുനിൽക്കുന്നൊരു കാര്യമാണ് രോഗമാണ് പ്രമേഹമെന്നുള്ളത് അതിപ്പോൾ തന്നെ പ്രായഭേദമന്ന്യേ കുഞ്ഞുങ്ങളിലാകട്ടെ മുതിർന്നവരിലാകട്ടെ പ്രമേഹത്തിൻ്റെ അളവ് രക്തത്തില് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലാകുന്നതിനെയാണ് പ്രമേഹം എന്നുതുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ പലരും ഈ ലോകത്ത് ഈ സമൂഹത്തില് ഇംഗ്ലീഷ് മരുന്നുകളിലൊക്കെ അഭയം തേടുന്നു അങ്ങനെയാകുമ്പോള് പല നാടുകളിലും അതൊക്കെ പല സൈഡ് എഫക്ട്സിന് കാരണമായി തീരുകയാണ് ശരീരഭാഗങ്ങളില് പല സൈഡ് എഫക്ട്സിന് കാരണമായിത്തീരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പണ്ട് പഴയ കാലം മുതല് നടന്നുവരുന്നൊരു കാര്യമായിരുന്നു നാട്ടുവൈദ്യങ്ങൾ എന്നുള്ളത് നാട്ടുവൈദ്യന്മാരുണ്ട് അതോടൊപ്പം തന്നെ അവര് തന്നെ ഉണ്ടാക്കുന്ന മരുന്നുകളെയാണ് നാട്ടുവൈദ്യങ്ങളെന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത് ഒരുപാട് തരത്തിലുള്ള നാട്ടുവൈദ്യങ്ങള് ഇന്ന് നമ്മുടെ ഈ ഭൂമിയില് സമൂഹത്തിലുണ്ട് അതിനകത്ത് പ്രമേഹത്തെ പോലെയുള്ള മാരകമായ ഒരുപാട് രോഗങ്ങളെ കൊല്ലാൻ സഹായിക്കുന്ന ഒരുപാട് തരത്തിലുള്ള പ്രമേഹ മരുന്നുകൾ പ്രമേഹത്തിനെതിരെ പ്രമേഹത്തെ നേരിടാനുള്ള ഒരുപാട് മരുന്നുകള് നമ്മുടെ ഗ്രാമങ്ങളിൽ പലതുണ്ട് അതില് പ്രധാനമായി ഇടുക്കിയില് കണ്ടുവരുന്നത് അമൃത് എന്നുപറയുന്ന ഒരു സസ്യത്തിൽ നിന്നൊരു സസ്യത്തിൽ നിന്നും അതിൻ്റെ ഇലകൾ പറിച്ചെടുത്ത് അത് നീരാക്കി അത് കുടിക്കുകയെന്നുള്ളത് വെറുംവയറ്റിൽ കുടിക്കുകയെന്നുള്ളത് അത് ഈ പ്രമേഹത്തെ നേരിടാൻ വളരെയധികം ഒരു പ്രാധാന്യമേറിയയൊരു ഘടകമായി മാറിയിരിക്കുകയാണ് ആ ആ ഇലകളിലുള്ള അതിൻ്റെ നീരില് നീരിൽ നിന്ന് നമ്മുടെ രക്തത്തിലുള്ള രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളില് ഈ ഇപ്പോൾ കണ്ടുവരാൻ കഴിയുന്നതെന്ന് പറഞ്ഞാല് ഈ അമൃത് എന്നുള്ള സസ്യത്തിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഒന്നാമത്തെ കാര്യത്തില് കാരണം പല സ്ഥലങ്ങളിലും അത് അന്യം നിന്നുപോകുകയാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നാമത്തെ കാരണം ഈ പല ഈ രോഗങ്ങള് പല വ്യക്തികളില് ഈ പ്രമേഹത്തിൻ്റെ അളവ് കൂടിവരികയാണ് അത് മൂലമാണ് പലരും അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇപ്പം ഇത് പ്രമേഹം ഈ സസ്യം അമൃതെന്നുള്ള സസ്യം കാണാൻ കഴിയുന്നില്ല അതിലപരി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു നാട്ടുവൈദ്യങ്ങൾക്കപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രമേഹത്തെ നേരിടാൻ പറ്റുന്ന ഒരു വലിയൊരു അവിഭാജ്യഘടകമെന്ന് പറയുന്നത് വ്യായാമം തന്നെയാണ് വ്യായാമത്തിലൂടെ പകുതി രോഗങ്ങൾക്കും ഒരു ആശ്വാസകരമായി തീരുന്നു നാട്ടുവൈദ്യന്മാരാകട്ടെ ഇംഗ്ലീഷ് ഡോക്ടർമാരാകട്ടെ എല്ലാവരും ഏവരും ഒരുപോലെ ഒറ്റസ്വരത്തിൽ പറയുന്ന ഒരു കാര്യം മാത്രമേയുള്ളൂ വ്യായാമം വ്യായാമമാണ് ആദ്യത്തെ പ്രധാനമായ ഘടകം വ്യായാമം ചെയ്യുന്നതിലൂടെ ഒരുപാട് തരത്തിലുള്ള രോഗങ്ങൾക്ക് പല രോഗങ്ങൾക്ക് ഒരു വലിയൊരു കാരണഭൂതമായി മാറുകയാണ് അതിനകത്ത് രോഗപരിഹാരങ്ങള് ലഭിക്കുകയാണ് വ്യായാമത്തിലൂടെ അത് നമ്മുടെ ശരീരങ്ങളിലുള്ള ബ്ലഡിൻ്റെ സെൽസുകളില് ഒക്കെ പല കാര്യങ്ങളില് ഈ വ്യായാമമൊരു വലിയൊരു അവിഭാജ്യഘടകമായി മാറുകയാണ് ഒരൊരു ഹെൽപ്ഫുള്ളായി മാറിയിരിക്കുകയാണ് അതിനകത്ത് ഈ അമൃത് പോലെയുള്ള പല സസ്യങ്ങളുടെ നീരെടുത്തിട്ടാണെങ്കിലും നമുക്കത് ചെയ്യാൻ കഴിയുന്നു രണ്ട് ഒരുപാട് വൃക്ഷ ഫലങ്ങള് ഓമയ്ക്ക അതോടൊപ്പം തന്നെ ഒരുപാട് വൃക്ഷങ്ങളിൽ നിന്ന് വൃക്ഷങ്ങളുടെ ഫലങ്ങള് കഴിക്കുന്നതോടൊപ്പം തന്നെ കഴിക്കുന്നതിലൂടെ ഇത് കുറയ്ക്കാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ മുള്ളുരുക്ക് എന്നുപറയുന്ന ഒരു വൃക്ഷത്തിൻ്റെ ഇല അത് അതെടുത്ത് വെള്ളം തിളപ്പിച്ചുകുടിക്കുന്നു അതോടൊപ്പം തന്നെ കറുകപ്പട്ടയുടെ ഇല വെള്ളം തിളപ്പിച്ചുകുടിക്കുന്നു അങ്ങനെ അതിലൂടെയൊക്കെ ഈ പ്രമേഹത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അത് മനുഷ്യരുടെ ജീവിതത്തില് പ്രമേഹരോഗത്തിൻ്റെ പ്രമേഹമെന്നുള്ള രോഗത്തെ നേരിടാൻ അത് വളരെയധികം സഹായകമായി തീരുകയാണ് അത് ഈ വൃക്ഷഫലങ്ങളുടെ ഇലകളിൽ നിന്നും അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ ഫലങ്ങളിൽ നിന്നൊക്കെയും ഇത് വളരെയധികം പ്രയോജനമായി തീരുകയാണ് പ്രമേഹത്തെ നേരിടാനായിട്ട് അതിനകത്ത് പ്രമേഹത്തിന് ഈ മുള്ളുരുക്ക് അതോടൊപ്പം തന്നെ അമൃത് അതോടൊപ്പം തന്നെ ഓമയ്ക്ക ഇങ്ങനെ പലതരത്തിലുള്ള വൃക്ഷഫലങ്ങൾ ഈ പ്രമേഹത്തെ നേരിടാൻ വളരെയധികം സഹായകമായിത്തീരുന്നു പ്രധാനമായും അതിൻ്റെ ഇലകള് വേരുകള് അതൊക്കെയിട്ട് തിളപ്പിക്കുന്ന വെള്ളം ഇതൊക്കെ കുടിക്കുന്നതിലൂടെ നേരിയ തോതിലുള്ള പ്രമേഹത്തിൻ്റെ അളവ് കുറയാൻ സഹായിക്കുന്നുണ്ട് അത് വളരെയധികം ജീവിതത്തിലെ ജീവിതത്തിൻ്റെ ഈ പ്രമേഹം എന്ന രോഗത്തെ നേരിടാൻ വളരെയധികം സഹായകമായി തീരുകയാണ് അതോടൊപ്പം തന്നെ നാട്ടു വൈദ്യന്മാരാാണെങ്കിലും പലരും മുൻപുള്ള കാലങ്ങളിലുള്ള അവരുടെ പല രഹസ്യക്കൂട്ടുകളും ഈ സമയങ്ങളിൽ ഈ ദിവസങ്ങളിൽ അത് അവര് പുറത്തുവിടുന്നില്ല അത് പ്രധാനമായി അതൊരു അവരുടെ ഒരു വലിയൊരു ഒരു സുരക്ഷയുടെ ഒരു വലിയ അവരുടെ പ്രധാനമായ സീക്രറ്റ്സ് ആയിരുന്നു അതിപ്പോൾ അവര് പുറത്തുവിടുന്നില്ല അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുകയാണെങ്കില് അത് അവരുടെ തന്നെയൊരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ അവരുടെ ഐഡൻ്റിറ്റിയെ ബാധിക്കുന്ന ഒരു സാധനമായതുകൊണ്ടുതന്നെയാണ് അവരങ്ങനെ പുറത്തുവിടാതെയിരിക്കുന്നത് അത് അതുകൊണ്ടുതന്നെ അതിലൂടെയൊക്കെ പ്രമേഹത്തിനെ ഈ ഇപ്പോൾ വരുന്ന മനുഷ്യരില് കൂടുതലും ഭൂരിഭാഗം ആളുകളും ഈ ഇംഗ്ലീഷ് മരുന്നുകളെ അല്ലെങ്കിൽ മരുന്നുകളിലൊക്കെ ആശ്രയിക്കുമ്പോള് ഈ നാട്ടുവൈദ്യങ്ങളില് ആശ്രയിക്കുന്നവര് കുറവായിവരുന്നു നാട്ടുവൈദ്യങ്ങളും കുറവായിവരുന്നു എന്നാലും നേരിയ തോതിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ളവരാണ് ഈ നാട്ടുവൈദ്യങ്ങളിലാണെങ്കില് ഔഷധങ്ങളിൽ സസ്യങ്ങളിലൊക്കെ അഭയംതേടി ഈ പ്രമേഹമെന്ന രോഗത്തെ തടയാൻ സാധിക്കുന്നത്